എനിക്ക് രണ്ട് ദിവസായിട്ട് തലവേദനയും പണിയും ഒക്കെ ആണ് അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ പോസിറ്റീവ് ആണെന്ന് റിസൾട്ട് വന്നു അപ്പോൾ അ റൂമിലാണ് അ ക്വാറൻറ്റീനിൽ ആണ് അടുത്ത വീട്ടില് അങ്ങനെ കുഴപ്പങ്ങൾ ഒന്നും ഇല്ലഇല്ല അ ഒന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടില് പോയിട്ടുണ്ടായിരുന്നു അ അവിടുന്നാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്

ഭയങ്കര തലവേദന ഉണ്ട് പനി ചെറുതായിട്ടേ ഉള്ളു ഇല്ല ഇല്ല ഇല്ല

വേറെ അങ്ങനെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല തലവേദനേൻ്റെ പ്രശ്നം മാത്രമെ ഉള്ളു അ വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്തതായിരുന്നു

ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് എടുക്കാമോ അ അവരോടൊക്കെ വിളിച്ച് പറഞ്ഞതായിരുന്നു അ തലവേദന മാത്രമെ ഉള്ളു വേറെ പ്രശ്നമൊന്നും ഇല്ല

ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ